ഞാനിപ്പോൾ എന്തെങ്കിലും പാചകം ചെയ്ത് ഇതാക്കുകയാണെങ്കില് ആദ്യം ഞാന് ചെയ്യുന്നത് കഷണങ്ങളൊക്കെ മുറിച്ചു വെയ്ക്കും പിന്നെ ഇപ്പോൾ വറുത്ത് അരച്ചതാണെങ്കിൽ വേഗം തേങ്ങ ചിരണ്ടി വയ്ക്കും പിന്നെ കറിവേപ്പില പറിച്ചെടുത്തോണ്ട് വയ്ക്കും പിന്നെ എന്തെങ്കിലും വറുത്തു പൊടിക്കാനുള്ള സാധനങ്ങള് ആണെങ്കിൽ നേരത്തെ വറുത്ത് പൊടിച്ചു വയ്ക്കും ഞാന് കൂടുതല് ചെയ്യുന്നത് തേങ്ങ ചിരണ്ടി വയ്ക്കും അല്ലെങ്കില് ഇപ്പോൾ തേങ്ങ അരച്ചു വയ്ക്കേണ്ടത് ആണെങ്കില് ഒരു പക്ഷെ കറി വെന്ത് കഴിയുമ്പോൾ ആയിരിക്കും ഇത് കരണ്ട് പോകുന്നത് അപ്പോൾ വേഗം അരച്ചു വയ്ക്കും അതു കാരണം മിക്കവാറും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒതുക്കാനുള്ളത് ഒക്കെ ആണെങ്കില് തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് ഒതുക്കി വയ്ക്കും എന്നിട്ട് തോരനുള്ളത് നേരത്തെ അത് നമ്മൾ കറിക്ക് മുറിച്ചു വെക്കാന് നേരത്ത് തന്നെ വേഗം അതങ്ങ് ഒതുക്കി വയ്ക്കും എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുന്നത് അപ്പോൾ തന്നെ വേണം എന്ന് ഇല്ലല്ലോ അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ മോരുകറിക്കാണെങ്കിൽ പിന്നെ ഇത് നമ്മള് തേങ്ങ അരച്ചു വയ്ക്കും നേരത്തെ അതേപോലെ തന്നെ മോര് ഞാന് മിക്സിയില് ഇട്ടിട്ടു ഒന്ന് തിരിക്കും അല്ലെങ്കില് അത് ഇളക്കി എന്താ ഉടയ്ക്കണം എന്നാ മിക്സിയില് ഇട്ടു തിരിക്കുമ്പോൾ വേഗം ഉടഞ്ഞു കിട്ടും അപ്പോൾ അത് രണ്ടും നേരത്തെ ആക്കി വെക്കും അപ്പോൾ ഈ കുമ്പളങ്ങയോ അല്ലെങ്കിൽ വാഴക്കയോ അല്ലെങ്കിൽ ഉള്ളി ആയിരിക്കും ഞാൻ മോര് കറി വയ്ക്കുക അപ്പോൾ വേഗം അതിനകത്തോട്ടു അരപ്പ് ചേര്ത്താൽ മതി അത് നമ്മള് അരച്ച് മൂത്ത് കഴിയുമ്പോൾ നമ്മള് ഉള്ളി നമ്മള് അരച്ചു വെച്ചേക്കുന്ന തേങ്ങയിട്ട് അതും മൂത്ത് കഴിയുമ്പോൾ ആണ് നമ്മള് പിന്നെ ഇത് ഒഴിക്കുക തൈര് ഒഴിക്കുക അപ്പോൾ തൈര് ഉടഞ്ഞിരിക്കണം പക്ഷെ പെട്ടെന്നു നമുക്ക് കരണ്ടില്ലെങ്കില് നമ്മള് ഉടച്ചു വരുമ്പോൾ സമയം എടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാന് നേരത്തെ ചെയ്യും മുന്കൂട്ടി ചെയ്തുവയ്ക്കും കരണ്ടില്ലല്ലോ എന്നുള്ള ഒരിതിൽ ചെയ്തു വയ്ക്കുന്നതാ അതുപോലെ തേങ്ങ അതൊക്കെ ചിരണ്ടി വയ്ക്കും അതേപോലെ സവാള ഇപ്പോൾ എന്തെങ്കിലും കറിക്ക് ചിക്കന് ഒക്കെ ആണെങ്കില് അല്ലെങ്കില് ബിരിയാണിക്ക് ഒക്കെ ആണെങ്കിൽ സവോളയും ക്യാരറ്റ് ക്യാരറ്റ് അതേപോലെ തന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ നന്നാക്കി വയ്ക്കും അല്ലെങ്കിൽ ഒരു ടിന്നിൽ ഏറ്റവും കൂടുതല് ഞാന് ചെയ്യുന്നത് ഇഞ്ചിയൊക്കെ ചിരണ്ടിയിട്ട് കട്ട് കട്ടാക്കി കട്ടാക്കീട്ട് കട്ട് കട്ട് ചെറുങ്ങനെ ചെറുങ്ങനെ മുറിക്കും അതേപോലെ തന്നെ വെളുത്തുള്ളി മുറിച്ച് കുഞ്ഞുള്ളി കുറച്ച് നേരത്തെ ഇപ്പോൾ ഒരു കിലോയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ടിവിയൊക്കെ കാണുന്ന സമയത്ത് അതിരുന്നു നന്നാക്കും നന്നാക്കിയിട്ടു പിന്നെ ഒരു നല്ല കണ്ടയിനറിലടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാ ചെയ്യുക എന്നിട്ട് ആവശ്യത്തിനു നമ്മൾ എടുത്ത് കട്ട് ചെറിയുള്ളി മാത്രം അപ്പോൾ കട്ട് ചെയ്യും ബാക്കിയെല്ലാം ഞാന് നടുക്ക് വച്ചിട്ട് തന്നെ മുറിച്ചു വെളുത്തുള്ളി ഒക്കെ നടുക്ക് വച്ച് മുറിക്കും അതേപോലെ തന്നെ ഇത് ഇഞ്ചിയും അങ്ങനെ തന്നെ മുറിച്ചായിരിക്കും അത് ചെരണ്ടിയിട്ടു വയ്ക്കും ഓരോ സമയം ഓരോ മൂഡ് പോലെ ഇരിക്കും അപ്പോൾ എനിക്ക് എന്റെ പാചകം കൂടുതല് എളുപ്പം ആണ് എനിക്ക്